ഞാൻ ഏറ്റവും കൂടുതൽ പഠിക്കാൻ ആഗ്രഹിച്ചത് സാമ്പാർ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഇപ്പോഴും ബുദ്ധിമുട്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് സാമ്പാർ വയ്ക്കാൻ അറിയില്ല പിന്നെ പാചകം എന്നു പറയുന്നത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം അല്ല നമ്മൾ മനസ്സിരുത്തി നല്ലോണം ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് പാചകം പിന്നെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചില ബുദ്ധിമുട്ടുണ്ടാവും ചിലപ്പോൾ പൊടി ഇടുന്നതും പൊടികളിടുന്നതൊക്കെയാണെങ്കിലും കറിയൊക്കെ വയ്ക്കുമ്പോൾ പൊടികളിടുന്നതൊക്കെ ആണെങ്കിലും ഒരു ബുദ്ധിമുട്ടാണ് അത് പിന്നീട് നമ്മൾ മനസ്സിരുത്തി പഠിച്ച് കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യമാണ് പാചകം എന്നു പറയുന്നത്